ഹലോ ഇത് ടൂ വീലര് റെന്റല് കമ്പനിയല്ലേ ആ എന്റെ പേര് നിധി എന്നാണേ ഞാന് ഞങ്ങളൊരു പ്രോ ന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നേ ഇടുക്കിക്ക് മാളൂര് കോട്ടയത്തുനിന്ന് വരുകയാണ് ഞങ്ങള് അപ്പോള് ഞങ്ങളിപ്പോള് ഇപ്പോള് ഇടുക്കിയിലുണ്ട് ആ ഞങ്ങൾ കോട്ടയത്തുനിന്നൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടു വരുന്നതാണ് ആ ആ ഞങ്ങള്ക്കു കുറച്ച് കുറച്ചു നാള് ഞങ്ങളിവിടെക്കാണും ഇപ്പോള് ഒരു മാസത്തേക്ക് ഏകദേശമൊരു മാസം കാണുമായിരിക്കും ഇപ്പോള് ഒരു മാസത്തേക്കൊരു ബൈക്ക് നമുക്ക് കിട്ടുമോ എന്നറിയാന് വേണ്ടിയിട്ടാണു വിളിച്ചത് ഒരെണ്ണം മതി ആ തല്ക്കാലം ഒരെണ്ണം മതി ഇപ്പോള് ആവശ്യമുണ്ടെങ്കില് ഇടയ്ക്കു ചോദിച്ചാൽ നിങ്ങള് തരുമായിരിക്കുമല്ലോ അല്ലേ അതെ അതെ ഫുള്ടൈം വേണം ഇപ്പോള് നാളെ നമുക്ക് തരുകയാണെങ്കില് നമ്മള് ഇവിടെനിന്നു പോവുന്നിടം വരെ ഉള്ളതാണ് ഞങ്ങളുദ്ദേശിക്കുന്നത് ആ എങ്ങനെയാരിക്കും പെര് ഡേയാണോ വരുന്നത് അതോ പെര് അവറാണോ വരുന്നത്

ഓക്കെ അപ്പം ആ ഓക്കെ ഞങ്ങളാണേ ആദ്യമായിട്ടാണേ ഇടുക്കിക്ക് അപ്പോള് നമുക്ക് ബസ്സ് കയറിപ്പോവുന്നതിനെക്കാളിലും കുറച്ചുകൂടെ ഞങ്ങള്ക്ക് പ്രോജക്റ്റിന്റെ ഒരു സര്വ്വേ പോലെയാണ് അപ്പോള് അതിന്റെയൊക്കെ ഞങ്ങള്ക്ക് ടൂ വീലര് തന്നെയാണ് കുറച്ചുകൂടെ എളുപ്പം അതുകൊണ്ടാണ് നമ്മളിതുപോലുള്ളൊരു ആ ഓക്കെ ഓക്കെ എഴുനൂറ്റി അന്പത് ഇച്ചിരി കൂടുതലല്ലേ നമ്മള് സാധാരണ എഴുന്നൂറ്റി അന്പതു തന്നെയാണോ മേടിക്കുന്നത് ആ ഹാ ആ ആ ആ ആ ഓക്കേ അതു കുഴപ്പമില്ല അപ്പോള് അങ്ങനെയാണെങ്കില് ഞങ്ങളൊരു മൂന്നു പേരാണിപ്പോള് നിലവിലുള്ളത് രണ്ടു പേരേ ഉള്ളൂ നിലവില് ഇപ്പോള് ഒരാളുകൂടെ ചിലപ്പോള് നാളെ വരാന് സാധ്യതയുണ്ട് അപ്പോള് അങ്ങനെയാണെങ്കില് ഞാനൊരെണ്ണംകൂടെ അങ്ങനെ വിളിക്കാം ആ ഉം ആ ഓക്കെ നമ്മളപ്പോള് ഇത് എടുക്കുന്നതിനു മുൻപേതെങ്കിലും ഡോക്കുമെന്റ്സ് സമ്മിറ്റേയ്യാ അങ്ങനെന്തേലുമുണ്ടോ നമുക്ക് ഇപ്പോള് ഞങ്ങള് രണ്ടു പേര്ക്കാണ് പറഞ്ഞത് രണ്ടു പേര്കൂടി ക്കാനായിരുന്നു അപ്പോള് ഒരാളുടേതു തന്നാല് മതിയല്ലോ അതോ രണ്ടു പേരുടെയും മേ ബീ ഞങ്ങള് രണ്ടു പേരും മാറി മാറിയൊക്കെ ആയിരിക്കും ഓടിക്കുന്നത് അതുകൊണ്ടാണു ഞാന് ചോദിച്ചത് രണ്ടു പേരുടെയും വേണമോ എന്ന് ആ ആ ഡ്രൈവിങ് ലൈസന്സിന്റെ കോപ്പി മാത്രം മതിയോ ഡ്രൈവിങ് ലൈസന്സിന്റെ കോപ്പി മാത്രം മതിയോ അതോ വേറെന്തേലും ഡോക്കുമെന്റ്സ്സ് വേണോ

എല്ലാത്തിന്റെയും ഫോട്ടോ തന്നാലും മതി അല്ലേ ഞങ്ങളുടെ കോപ്പി കയ്യിലില്ല ഫോട്ടോ മതിയോ ഓക്കെ ആ നമുക്കു വന്നു നോക്കേണ്ട ആവശ്യം നാളെ ഞങ്ങള് വന്നാല് വന്നു നോക്കി എടുക്കാനുള്ള ഒോപ്ഷനുണ്ടോ നാളെ ഷോപ്പെപ്പോഴായിരുന്നു ഓപ്പണ് ചേയ്യുന്നത് അപ്പോള് ഞങ്ങള് പത്തരയാവുമ്പോള് വന്നാല് കുഴപ്പമില്ലായിരിക്കുമല്ലോ ഓക്കെ ഞങ്ങളെന്തായാലുമൊരു രണ്ടു ദിവസം മുന്നേ വന്നു എന്നേ ഉള്ളൂ ഇവിടേക്ക് ഞങ്ങളിനി രണ്ടു ദിവസം കഴിഞ്ഞേ ഞങ്ങള് വര്ക്ക് സ്റ്റാര്ട്ടെയ്യത്തുള്ളൂ ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞേ സ്റ്റാട്ടേയ്യുള്ളു അപ്പോള് ഇതൊക്കെയൊന്ന് നോക്കി റെഡിയാക്കാമെന്നു വിചാരിച്ചാണു നേരത്തേ വന്നത് ഓക്കെ അപ്പോള് നമുക്ക് മോഡലൊക്കെ നോക്കാമല്ലോ അല്ലേ നാളെ വരുമ്പോള് ഓക്കെ ആ ആയിക്കോട്ടെ അപ്പോള് നാളെ വരുമ്പോള് ഡീറ്റേയ്ല്സ് കൂടുതല് ഡീറ്റെയില്സ് പറയാമല്ലോ ആ താങ്ക്യു ഓക്കെ